കൃഷി തൊഴിലിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ നെല്ല് വിതക്കുന്നതാണ് അതൊരു പ്രത്യേക രസമാണ് കാണാനും അതുപോലെത്തന്നെ ചെയ്യാനും അപ്പം അതൊരു എനിക്ക് ഏറ്റോവും ഇഷ്ടപ്പെട്ടൊരു കൃഷി ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം അതാണ് അപ്പം എന്ത് കൃഷിയായാലും ഇപ്പം നെല്ല് മാത്രമല്ല നമ്മൾ പച്ചക്കറി കൃഷികൾ ചെയ്യാറുണ്ട് പിന്നെ വാഴ കപ്പ പിന്നെ തണ്ണിമത്തൻ അങ്ങനെ കുറേ കൃഷിയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അതിൽ ഏറ്റവും രസം ഉള്ളത് അല്ലെങ്കിൽ അത് കുറച്ചുംകൂടെ ഇൻട്രസ്റ്റ് ഉള്ളത് ഇൻട്രസ്റ്റ് ചെയ്യാൻ നെല്ല് വിതക്കുന്നതാണ് പിന്നെ കൃഷി എന്നെ സന്തോഷവാനാക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളാഗ്രഹിച്ച ഫലം കിട്ടും അതായത് നമ്മൾ നഞമ്മൾക്കിപ്പം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒരു നമുക്കതിൻ്റെതായിട്ടുള്ള നമുക്കിപ്പം ആ ഒരു സാധത്തിന് കൃഷി ചെയ്ത ഒരു സംഭവം നമുക്ക് അത് കിട്ടുകയാണ് ഇരട്ടി കിട്ടുകയാണ് എന്ന് നമുക്ക് ഫലം കിട്ടുമ്പോളാണ് നമുക്ക് ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയിട്ടുള്ളത് അതിപ്പം ഏതൊരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് എല്ലാവർക്കും തോന്നൽ കാരണം അതാണ് എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്നത് കാരണം അത്രയ്ക്കും അവർ കഷ്ടപ്പെട്ട് രാത്രിയും രാവിലെയും ഉച്ചക്കൊക്കെ കഷ്ടപ്പെ രാത്രിയില്ല രാവിലെ ഉച്ചക്കൊക്കെ കഷ്ടപ്പെട്ട് അവർ ചെയ്തതിൻ്റെ പ്രതിഫലം ആ ഒരു ഫലം കിട്ടുമ്പോളാണ് അത് ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് നല്ല പോലെ ഫുഡ് കഴിക്കാനൊക്കെ പറ്റുന്നത് അപ്പം അത്താലോചിച്ച് അല്ലെങ്കിൽ അതാണ് ഏതൊരു കൃഷിക്കാരെയും സന്തോഷവനാക്കുന്നത് അവർക്ക് ഫലം അവരാഗ്രഹിച്ച രീതിയിൽ തന്നെ ഫലം കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ കൃഷി തൊഴിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ചെറുതായിട്ടൊന്നും കാണാൻ പാടില്ല കാരണം അവരൊക്കെ എത്രയോ വലിയ നമുക്ക് ഫുഡ് തരുന്ന ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇപ്പം അരിയാണെങ്കിൽ നമ്മൾ അരി ഉണ്ടാക്കുന്നത് അവരാണ് നെല്ല് വിതച്ച് മെതിച്ചൊക്കെ ചെയ്യുന്നത് അവരാണ് തന്നെ പച്ചക്കറിയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ കൃഷി ചെയ്യാതെ നമുക്കൊന്നും കിട്ടില്ല അപ്പം കൃഷി ഒരു വലിയൊരു പ്രധാനപ്പെട്ടൊരു സംഭവമാണ് ഈ ലോകത്ത് ലോകത്തും എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കൃഷി എന്ന് പറയുന്നത് പിന്നെ സന്തോഷവാനാക്കുന്നത് ഏറ്റവും എല്ലാവർക്കും സന്തോഷം കിട്ടുന്നത് കൃഷിക്കാരൻക്കും അല്ലെങ്കിൽ കൃഷിക്കാരൻക്ക് സന്തോഷം കിട്ടുന്നത് അവർക്കതിൻ്റെ ഫലം കിട്ടുമ്പോൾ മാത്രമാണ് അല്ലാതെ അവരെത്ര പണിയെടുത്തിട്ടും അവർക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് മീൻസ് അതിൻ്റെ ഒരു ഗുണം കിട്ടിയില്ലെങ്കിൽ അത് അവരെ സംബന്ധിച്ചടത്തോളം അവർക്ക് നല്ല വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത് അപ്പം കൃഷിക്കാർക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അവർക്ക് ഫലം കിട്ടണം അവർ ചെയ്യുന്നത് ഹാപ്പി ആയിട്ടായിരിക്കും അവർ ചെയ്യുക അതുപോലെത്തന്നെ അവർക്ക് സന്തോഷം കിട്ടണം കൃഷിക്കാർക്ക് അപ്പം ഏ